ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതലും അത് സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് വായ്പ്പയെടുക്കുന്നത് അതിലൂടെ പല കാരണത്തിലും വായ്പകൾ എടുക്കുന്നതാണ് ഇപ്പോള് സ്വകാര്യസ്ഥാപനങ്ങളിൽ നിന്നുമാണ് വായ്പകൾ എടുക്കുന്നത് പല പല കാരണങ്ങളിൽ ആളുകൾ വായ്പകൾ എടുക്കുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ് അതുപോലെതന്നെ എന്തേലും കല്യാണം നടന്നാലും മരണം സംഭവിച്ചാലും അവിടത്തെ പല കാര്യങ്ങൾക്കുവേണ്ടിയും പിന്നെ അങ്ങനത്തെ ഓരോന്നോരോ കാര്യങ്ങൾക്കുവേണ്ടിയും നമ്മൾ ചെറിയ കാര്യങ്ങൾക്കുപോലും ആണെങ്കിലും വായ്പയെടുക്കുന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യമായിട്ടാണു വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതലും അങ്ങനെ അങ്ങനെ വായ്പ എടുക്കുമ്പോള് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് പലിശകൾ കൂട്ടി വായ്പകൾ നമ്മള് എടുത്തത് തിരിച്ചുകൊടുക്കേണ്ടതും ഉ ഉള്ളതും അതുപോലെത്തന്നെ പ പ പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയങ്ങളിലും വായ്പകൾ വായ്പകൾ എടുത്തതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് അവർക്ക് കൊടുക്കേണ്ടതും ഉണ്ടാകുമ്പോൾ ഒരുപാട് വ വളരെ മോശമായ രീതിയിലും നമുക്ക് കൊടുക്കാന് പറ്റാത്ത സാഹചര്യത്തിലാകുമ്പോള് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലവര് വരികയും ജപ്തിപോലെയുള്ള പല കാര്യങ്ങളും പ്രശ്നങ്ങളും പലര് പലരുടെ ജീവിതത്തിലും അത് സംഭവിക്കുന്നതാണ് വായ്പ എന്നത് വ നല്ല കാര്യമായിട്ട് എന്നതല്ല നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് വായ്പകൾ എടുക്കാം അതുപോലെത്തന്നെ അതുപോലെത്തന്നെ അത് തിരിച്ച് കൊടുക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് സ്വർണത്തിൻ്റെ കാര്യത്തിലും സ്വർണ പണയം വായ്പ എടുക്കുന്നതാണ് സ്വർണം എന്ന് നമ്മള് ഉദ്ദേശിക്കുമ്പോള് കല്യാണം അങ്ങനത്തെപോലെയുള്ള പല കാരണത്തിലും പെണ്ണിനും ചെറുക്കനും വേണ്ടി നമ്മള് വായ്പ എടുത്തിട്ടാണ് നമ്മൾ സ്വർണങ്ങളും എടുക്കുന്നത് അതുപോലെതന്നെ ഭക്ഷണത്തിനുവേണ്ടിയും മറ്റും പലകാര്യങ്ങൾക്കുവേണ്ടിയും വസ്ത്രങ്ങൾക്കുവേണ്ടിയും നമ്മള് എടുക്കാന് വായ്പകൾ എടുക്കും മരിക്കും മരിക്കുന്ന വീട്ടിലും മരിക്കുന്ന വീടുകളിലും നമ്മള് അതിൻ്റെ പല കാരണത്തിലും പാവപ്പെട്ടവരുടെയാണേ ഇത് കൂടുതലും ബാധിക്കുന്നത് ചിലപ്പോൾ എല്ലാ ദിവസവും കൂലികിട്ടുന്നവർക്കും അവരേ ഇത് കൂടുതലും ബാധിക്കുന്നതാണ് എന്നാൽ ശമ്പളം കിട്ടുന്നവർക്ക് അധികം ഇവരെ ബാധിക്കത്തില്ല കാരണം തിരിച്ചുകൊടുക്കാമെന്നൊരു ഒറപ്പ് നമുക്ക് ഉണ്ടായിരിക്കും പിന്നേ വായ്പാ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആൾക്കാര് മരിക്കുക വരെ ചെയ്യാറുണ്ട് അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ഗ്രാമങ്ങൾ പോലെയുള്ള സ്ഥലത്താണ് കൂടുതലും നമ്മള് കാണപ്പെടുന്നത്